ഹലോ കോയമ്പത്തൂരു നിന്ന് വിളിക്കുന്നതാണേ നമുക്കൊരു പിന്നെ രണ്ടു ടു വീലർ വേണമായിരുന്നു രണ്ടു ബൈക്ക് ഹിമാലയൻ ബൈക്ക് ഒക്കെ ഉണ്ടോ അവിടെ ആ അപ്പോൾ നമുക്ക് ഒരു ഹിമാലയനും ഒരു ബുള്ളറ്റും അങ്ങനെ രണ്ടു ബൈക്ക് വേണ്ടത് നമ്മൾ നാലു പേരുണ്ട് അപ്പോൾ നമുക്കൊരു ഒരു ഒരാഴ്ചത്തേക്കുള്ള ട്രിപ്പിന് വേണ്ടി വരുന്നതാണ് നമ്മൾ അപ്പോൾ നമുക്ക് അത് വേണം ടു തൗസൻറ് വേണ്ടി വരും അല്ലേ അപ്പോൾ എണ്ണയൊക്കെ നമ്മൾ തന്നെ അടിക്കണോ അല്ല എന്തെങ്കിലും എണ്ണ ആ അപ്പോൾ ഒരു ഫൈവ് ലിറ്റർ അല്ലേ ആ ഓക്കേ ആ ആ ഓക്കേ ഓക്കേ ആ അപ്പം പെർ ഡേ നമുക്ക് രണ്ടായിരം രൂപ അല്ലേ ആ ആ ആണല്ലേ ഹാ ഹാ ഹാ നമുക്ക് റേറ്റ് ഒന്നും പ്രശ്നമില്ല നമുക്കൊരു സിക്സ് ഡേയ്സിന് വേണ്ടിയായിരുന്നു നമ്മൾ സിക്സ് ഡേയ്സിന് വേണ്ടിയാണ് വരുന്നത് അപ്പോൾ നമുക്കിങ്ങനെ കിലോമീറ്റർ അങ്ങനെയെന്തെങ്കിലും ഉണ്ടോ ഇത്ര കിലോമീറ്ററേ ഒരു ദിവസം പോകാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയുണ്ടോ ആണല്ലേ ഹാ ഹാ ഹാ ആ അതെയതെയതെ ആ ആ അത്രയും വരുമല്ലേ എത്രയാണ് നിങ്ങളെത്രയാണ് ടു ഹൺഡ്രഡ് ആണോ ഡെയ്ലി ഒരു ഒരു ഡേ നിങ്ങളുടെ ഇത് പറയുന്നത് ടു ഹൺഡ്രഡ് ആണോ ആ അതിൻ്റെ ഇത് പോയി കൂടുതൽ പോയിട്ടുണ്ടെങ്കിൽ മാത്രം രണ്ടായിരത്തിൽ നിന്ന് കുറച്ചു കൂടുമല്ലേ അഡിഷണൽ പേയ്മെൻറ് അല്ലേ അങ്ങനെയാണല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ ആണല്ലേ അ ആ ആ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ വിളിച്ചത് കോൺടാക്റ്റ് ചെയ്തത് നേരത്തെ വിളിക്കേണ്ട അല്ലേ ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ വ എന്തായാലും വരുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാം നമുക്ക് കറക്റ്റ് അറിയില്ല സ്ഥലമെവിടെയാണ് എന്നുള്ളത് നിങ്ങൾ ഒന്ന് ലൊക്കേഷൻ ഇട്ടുതന്നാൽ മതി നമ്മളങ്ങോട്ട് വന്നോളാം ആ ഓക്കേ ഓക്കേ ഓക്കെ താങ്ക് യൂ